നമ്മുടെ മാത്രം വീട്ടുമുറ്റത്തേക്ക് എല്ലാ എല്ലാവരുടെ വീട്ടിലേക്കും ഓരോ പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലൊക്കെ വരാറൊക്കെ ഉണ്ട് നമ്മള് നമ്മളെ ഉപദ്രവിക്കാത്ത മൃഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളതിനെ വെള്ളവും ഭക്ഷണവുമൊക്കെ കൊടുക്കാറുണ്ട് അതേപോലെ പക്ഷികള് ഇഷ്ടം പോലെയുണ്ട് പക്ഷികളാണെങ്കില് കാക്കയാണെങ്കിലും പൂമ്പാറ്റയാണെങ്കിലും വണ്ടുകളാണെങ്കിലും തുമ്പികളാണെങ്കിലും ഒരുപാടുണ്ടാകും എല്ലാ പ്രദേശത്തും അവര് ഇങ്ങനെ പൂവിലെ തേൻ കുടിക്കാനും പൂവിലെ പരാഗണം ചെയ്യാനൊക്കെ അങ്ങനെ വരാറുണ്ട് നമ്മള് അവർക്ക് നമ്മളാൽ കഴിയുന്ന കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളൊക്കേന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പാത്രത്തില് കുറച്ച് വെള്ളം വച്ച് കൊടുക്കും ഈ പക്ഷികളൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമ്മള് അരിമണിയും ധാന്യങ്ങളൊക്കെ കൊടുക്കാ കൊടുക്കാറുള്ളൂ ഇല്ലെങ്കിൽ അത് അവിടെ വെറുതെ വേസ്റ്റാകും അതേപോലെ തന്നെ ചെറിയ പാത്രത്തിൽ വെള്ളം വെക്കുകയാണെങ്കിൽ അതില് പട്ടികളാണെങ്കിലും പൂച്ചകളാണെങ്കിലും വന്ന് വെള്ളം കുടിക്കാറുണ്ട് നമുക്കത് കാണുമ്പോ തന്നെ ഒരു സന്തോഷാണ് നം നമ്മളും അങ്ങനെ എല്ലാവർക്കും കൊടുത്താലേ നമ്മക്കും അങ്ങനെ കിട്ടാറൊള്ളൂ